നമുക്ക് ചിത്രകല നമുക്കറിയാൻ പറ്റുന്ന നമുക്ക് കുഞ്ഞു നാളീ തന്നെ കുഞ്ഞിലേ പഠിക്കുമ്പം തന്നെ നമുക്കറിയാൻ പറ്റും നമ്മുടെ ബുക്കീ വരക്കുന്ന അങ്ങനെയൊക്കെ ഇപ്പം സ്കൂളിലൊക്കെ ഒരു മത്സരം നടത്തിയപ്പോഴ്ത്തേനും വെറുതെ ഒന്ന് വരച്ച് നോക്കിയതാണ് അപ്പോഴാണ് എനിക്ക് തോന്നിയത് വരക്കാൻ പറ്റും നമ്മൾ ശ്രമിച്ചാൽ വരയ്ക്കാൻ പറ്റും എന്നാൽ വരക്കാൻ പറ്റും എന്ന രീതിയിൽ അപ്പോൾ നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് വരക്കാൻ പറ്റുമെന്ന് അപ്പം സ്കൂളീ വെച്ചിട്ടങ്ങനെ ഒരു കോമ്പറ്റീഷൻ നടന്നപ്പോഴാണ് തോന്നിയത് വരക്കണമെന്ന് തോന്നാനിങ്ങനെ എപ്പോഴും എല്ലാവരും വരക്കുന്നവരൊക്കെ കാണുമ്പോഴ്ത്തേനും അതുപോലെ ഒക്കെ വരയ്ക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് തോന്നീട്ടുണ്ടായിരുന്നു അങ്ങനായിരുന്നു താൽപ്പര്യം തുടങ്ങിയത് അങ്ങനെ കുഞ്ഞ് കുഞ്ഞ് പടങ്ങളൊക്കെ വരച്ച് നോക്കാൻ നോക്കി ആദ്യം ഇങ്ങനെ വരയ്ക്കാൻ വരച്ച് നോക്കാൻ നോക്കി അത് കഴിഞ്ഞിട്ട് മറ്റുള്ളവർ വരക്കുന്നത് കണ്ട് അത്പോലെ ഇമിറ്റേറ്റ് ചെയ്ത് വരക്കാനായിട്ട് നോക്കും അത്പോലെ എന്തെങ്കിലുമൊക്കെ പിച്ചറ് കാണുമ്പോൾ ചെറിയ ചെറിയ ഡിസൈൻസ് കാണുമ്പോഴ്ത്തേനും അത് നോക്കി അത്പോലിങ്ങനെ വരക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് അങ്ങനെയാണ് വരക്കാനായിട്ടൊക്കെ തുടങ്ങുന്നത് ഇനി താൽപ്പര്യം തുടങ്ങിയതും അങ്ങനെ തന്നെയാണ് വരക്കുന്നവരെയൊക്കെ കാണുമ്പം വരക്കുന്ന ആ പിച്ചറക്കെ കാണുമ്പോഴ്ത്തേനും നമുക്കും അതുപോലെ വരക്കണം എന്ന് തോന്നാറുണ്ടായിരുന്നു അങ്ങനെ അപ്പം നന്നായിട്ട് വരക്കുന്നവരുടെയൊക്കെ കണ്ടിങ്ങനെ വരച്ച് നോക്കാറുണ്ട് അങ്ങനെ അങ്ങനെയാണ് വരച്ച് തുടങ്ങിയത് അത്പോലെ പിച്ചറ് എന്ന് പറയുമ്പോഴ്ത്തേനും ഇപ്പോൾ ഡാവിഞ്ചി പിക്കാസോ ഇവരുടെയൊക്കെ പിച്ചറ് കണ്ടിട്ടുണ്ടല്ലോ അതിലൊരുപാട് ഇന്നർ മീനിങ്ങ്സൊണ്ട് ഒരു പിച്ചറെന്നതിലുപരി അതിലിന്നർ മീനിങ്ങ്സൊണ്ട് അത്പോലെ ഡാവിഞ്ചിടെ തന്നെ ഈ ഇത് മൊണോലിസ ഇപ്പം ലാസ്റ്റ് സപ്പർ ആ പിച്ചറൊക്കെ കാണുമ്പോഴ്ത്തേനും നമുക്ക് ഒരു ഒരു തോ അവരോട് തന്നെ ഒരു റെസ്പെക്റ്റ് തോന്നും ആ ഒരു പിച്ചറ് കാണുമ്പോഴ്ത്തേനും അതിൽ ഒരു പിച്ചാറെന്നതിലുപരി ഒരുപാട് ഇന്നർ മീനിങ്ങ്സക്കെ ഉള്ള പിച്ചറാണത് ലാസ്റ്റ് സപ്പറെന്ന് പറഞ്ഞാലും നമ്മുടെ മൊണോലിസ അതൊക്കെ അതൊക്കെ പിന്നീട് ഒരുപാട് കവിതകളിലും ഇതിലൊക്കെ കൂടുതലിങ്ങനെ അതിനെക്കുറിച്ചിങ്ങനെ പറഞ്ഞിട്ടുണ്ട് കൂടുതലിങ്ങനെ വിശദീകരിച്ച് അതിനെക്കുറിച്ച് പറയാറുണ്ട് അങ്ങനെയാണ് ആ പിച്ചറക്കെ ഇങ്ങനെ ഫേമസായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ വരക്കുമ്പം ഇത്രേം വലിയ കലാകാരൻമാരാണവർ അപ്പമത് പോലെ നമുക്ക് അതുപോലെ നമുക്ക് ആകാൻ പറ്റുമോ എന്നുള്ള ശ്രമം ശ്രമിക്കാം നമുക്ക് ട്രൈ ചെയ്യാമല്ലോ അല്ലങ്ങനെ ട്രൈ ചെയ്യാൻ വേണ്ടീട്ട് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാറുണ്ട് അങ്ങനെ പിച്ചറ് പിന്നെ നമുക്ക് എന്താണ് സപ്പോർട്ട് എല്ലാം വരക്കും ഇപ്പോൾ കുഞ്ഞൊരു പടം വരച്ചാലും വരക്കാനായിട്ടുള്ള സപ്പോർട്ട് കിട്ടും അങ്ങനെ നമുക്ക് അതീന്ന് എന്തു ചെയ്യുക അതീന്ന് വലിയ വലിയ പടങ്ങൾ പടങ്ങൾ വരക്കാനും അതിനൊക്കെ സാധിക്കും അങ്ങനെ നല്ല പിച്ചറ് വരച്ച് ഭയങ്കര നമ്മൾ വരച്ച് വരച്ചാണ് കൂടുതലായിട്ട് നമുക്ക് അതിലൊരു താൽപ്പര്യം തോന്നുന്നത് നമുക്കത് നന്നായിട്ട് വരക്കാൻ പറ്റുന്നതൊക്കെ ഇങ്ങനെ വരച്ച് വരച്ചാണ് അപ്പമങ്ങനെ വരച്ച് കൂടുതലായിട്ട് അങ്ങനെ വരക്കാൻ ഒക്കെ സാധിച്ചിട്ടുണ്ട്